ഹലോ പെറ്റ് ഡോക്ടറല്ലേ സാറേ എൻ്റെ ഡോഗ് കുറച്ചു ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല ഇതിപ്പോള് രണ്ടുമൂന്നു ദിവസമായി പൊമേറിയൻ ആ ഇഞ്ചെക്ഷൻ കറക്റ്റെടുത്തതായിരുന്നു പക്ഷേ ഇപ്പോള് കുറച്ചു ദിവസമായിട്ട് എന്തോ ഫുഡ് കഴിക്കുന്നില്ല പിന്നെ എന്താണ് അധികം കളിച്ചുനടക്കുന്നൊന്നുമില്ല ആണോ അതു നമ്മള് യിരുന്നു ആ അല്ല ഇപ്പോള് ഇല്ല ഒന്നും കാണുന്നില്ല ഇപ്പോള് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമോ വരണ്ടയോ എന്നു ചോദിക്കാന് വേണ്ടിയിട്ടായിരുന്നു ആ അതുണ്ട് രണ്ടു ദിവസമായിട്ട് ഉണ്ട് ഫുഡ് കഴിക്കുന്നില്ല അതു നോക്കിയിട്ടില്ല സാറെ

നമ്മളിപ്പോള് എന്താണ് മാനന്തവാടിയാണ് ഓക്കെ അപ്പോള് ആണല്ലേ എനിക്കൊന്നു നോക്കിനോക്കണം അത് വയ്യാണ്ടായി നല്ല വയ്യാണ്ടായിരിക്കുന്നു ഇത് ഇന്നെത്ര മണി വരെ ഉണ്ടാവുമത് ആണല്ലേ അതറിയില്ല ഇനി അപ്പുറത്തെ വീട്ടിലേത്തോരൊക്കെ വച്ചിട്ടുണ്ടോ എന്നറിയില്ല ആ ഇടയ്ക്കു വൈകുന്നേരങ്ങളിലൊക്കെ അഴിച്ചുവിടാറുണ്ട് അപ്പോള് ഫുള് തോട്ടത്തില്ക്കൂടെയൊക്കെ കളിച്ചിട്ടാണു വരിക ആണല്ലേ

എന്നാലും എന്താണ് ഇപ്പോള് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ ആ എന്നാല് ഞാൻ നോക്കിയിട്ടു കൊണ്ടുവരാം സാറേ അതിന് ഇപ്പോള് ഇപ്പോള് ഒരു വർഷമാവുന്നതേ ഉളളൂ

ആ ഓക്കെ സാർ ആ ഓക്കെ ഓക്കെ